മലയാളഭാഷ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മലയാള ഭാഷ പണ്ടത്തെ പ്രാചീനമായ ഇന്ത്യൻ ഭാഷകളിൽ നിന്നും ഉത്ഭവിച്ചതാണ് മലയാള ഭാഷാന്ന് പറഞ്ഞാല് മലയാളഭാഷ പഠിക്കാൻ വളരെ പാടാണ് എന്നാണ് ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകം ഒട്ടാകെ പറയുന്നത് നമ്മൾ ലോകത്ത് എവടെ പോയാലും അതായത് ഈ ഭൂമിയിൽ എവടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്നൊള്ളത് ഒരു പൊതുവായിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ് സത് സത്യമാണ് കാരണം എവിടെ ചെന്നാലും നമുക്കൊരു ഒരു മലയാളിയെ കാണാൻ പറ്റും ഏതു മേഖലയിലായാലും ഏതു നാട്ടിലായാലും ഏതു രാജ്യത്തായാലും ഏതു ഭൂഖണ്ഡത്തിലായാലും നമുക്കൊരു മലയാളിയെ കാണാൻ പറ്റും എന്നാണ് പറയാറ് ഇനി മലയാള ഭാഷ ബാക്കിയുള്ള നാട്ട് അതായത് മലയാളികൾ അല്ലാതെ കേരളീയരല്ലാതെ ബാക്കിയുള്ളവർ എങ്ങനെയാണ് അത് നോക്കി കാണുന്നതെന്ന് വെച്ചാല് കാരണം എല്ലാ ഭാ മറ്റുള്ള ഭാഷ ഭാഷ പറയുന്ന എല്ലാരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അവർക്ക് ഈ ഭാഷ ഭയങ്കര പാടാണ് മനസിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പല ജില്ലകളെയും പല രീതീലുള്ള ശൈലികളാണ് മലയാളം പറയാൻ വേണ്ടീട്ട് അതുകൊണ്ടാണ് എല്ലാവരും മലയാള ഭാഷകൾ മലയാള ഭാഷയെ കുറിച്ച് വളരെ രീതിലോട്ടുള്ള ഒരു തെറ്റിധാരണ ആണ് ആ കാര്യംന്ന് പറഞ്ഞാല് അതായത് മലയാള ഭാഷ മനസിലാകുന്നില്ല മലയാള ഭാഷ വളരെ ബ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നൊക്കെയാണ് ആൾക്കാര് പറയുന്നത് പക്ഷെ നമ്മൾ ഒരു കുട്ടിയായിരിക്കുന്ന രീതിയിൽ ആണെങ്കിൽ മലയാള ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളം അതായത് കേരളത്തിലൊള്ളൊരു സ്കൂളുകളിൽ പഠിക്കുകയോ കോളേജുകളിൽ പഠിക്കുകയോ ചെയ്യുക ആണ് കാരണം അങ്ങനെ ആണെങ്കില് ഇപ്പോൾ ഒരു ഉത്തരേന്ത്യക്കാരാണ് എങ്കിൽ കേരളത്തിൽ വന്നു പഠിക്കുകയാണെങ്കിൽ അവര്ടെ ആ ആ ക്ലാസ്സിലുള്ള ബാക്കി ഉള്ള കുട്ടികൾ സംസാരിക്കുന്നതും അവര് കേൾക്കും അവരുടെ സാ ടീ അധ്യാപകരും സംസാരിക്കുന്നതും അവര് കേൾക്കും അങ്ങനെ മലയാളം കേൾക്കുകയും മലയാളം ശ്രദ്ധിക്കുകയും മലയാളം എഴുതാൻ പറ്റുകയും ചെയ്യുമ്പൊളാണ് ഒരാൾ മലയാളം പഠിക്കുന്നത് അങ്ങനെ ഉള്ളപ്പോൾ മലയാളം മനസിലാക്കുന്നതിലും വലിയ പ്രയാസം കാണില്ല ഒര് ഒരു വർഷത്തോട് കൂടി മലയാളം മനസിലാക്കാനും സാധിക്കും കാരണം മലയാളം പറയുന്നതില് ഏറ്റവും കൂടുതല് നമ്മടെ ശരീരം എക്സെസ്സിവ് അതായത് നമ്മടെ ശരീരം ഏറ്റവും കൂടുതല് എപ്പോഴാണ് മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷ നമ്മുടെ ശരീരത്തിലൊള്ള എല്ലാ ഞരമ്പുകളെയും പ്രവർത്തിപ്പിക്കുന്നുണ്ട് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ ഗുണം അതാണ് മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാളുടെ എല്ലാ ഞരമ്പുകളും പ്രവർത്തിക്കും കാരണം ഓരോ അക്ഷരം ഉച്ഛരിക്കുമ്പോഴും നമ്മളുടെ ഓരോ ഞരമ്പുകളാണ് ഉണരുന്നത് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ ഗുണവും അതു തന്നെയാണ് ബാക്കി ഉള്ള ഭാഷകൾക്ക് അങ്ങനെ ആയിരിക്കില്ല പക്ഷെ മലയാള ഭാഷയുടെ ഏറ്റവും വലിയ ഗുണം അതാണ് പിന്നെ മലയാള ഭാഷ ഏറ്റവും എളുപ്പത്തിൽ മനസിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമകൾ കാണുക മലയാളത്തിലുള്ള പാട്ടുകൾ കേൾക്കുക മലയാളത്തിലുള്ള എന്താ നാടകങ്ങൾ ശ്രദ്ധിക്കുക മലയാളത്തിൽ മലയാളികൾ ആയിട്ടുള്ള ആളുകളോട് വർത്താനം പറയാൻ ശ്രമിക്കുക അവരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇതൊക്കെ തന്നെയാണ് ഉള്ളത്